പ്രധാനമായും ഡിഗ്രി കോഴ്സുകളാണ് ഇവിടെ സമീപ പ്രദേശങ്ങളിലെ കോളേജുകളിൽ ലഭ്യമായിട്ടുള്ളത് ബി എ ഹിസ്ട്രി ബി എ എക്കണോമിക്സ് ബി എ മലയാളം എം എ മലയാളം ബി കോം എം കോം ബി ബി എ എം ബി എ ബി സി എ എം സി എ ബി എസ് എസ് സി മാക്സ് എം എസ് സി മാക്സ് ബി എസ് സി ഫിസിക്സ് എം എസ് സി ഫിസിക്സ് ബി എസ് സി കെമിസ്ട്രി എം എസ് സി കെമിസ്ട്രി ബി എ പൊളിറ്റിക്സ് ജേർണലിസം അടിസ്ഥാന ഡിഗ്രി കോഴ്സുകൾ മാത്രമാണ് ഈ പ്രദേശങ്ങളിൽ ലഭ്യമായിട്ടുള്ളൂ കൂടുതൽ സൗകര്യപ്രദവും ജോലി സാധ്യതയുമുള്ള ഉയർന്ന കോഴ്സുകൾക്ക് മറ്റ് ജില്ലകളെയാണ് പ്രധാനമായും ആശ്രയിക്കേണ്ടവസ്ഥയാണ് ഇന്നുള്ളത് ഉന്നത നിലവാരവും ഉയർന്ന സാങ്കേതിക വിദ്യയും വിദേശ രാജ്യങ്ങളിലേക്കുള്ള ജോലി സാധ്യതയും അന്വേഷിച്ച് നിരവധി കുട്ടികളാണ് മറ്റ് ഇടങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിനായി ഓരോ വർഷവും കടന്നു പോകുന്നത് പുത്തൻ ജീവിത രീതിയും പഠന പുരോഗതിയുമൊക്കെ ഇവ വിദ്യാർത്ഥികളെ ഇതിനായി പ്രേരിപ്പിക്കുന്നു ഭാവിയിലേക്കുള്ള ഉയർന്ന ജോലി സാധ്യതയും അവസരങ്ങളും നേടിയെടുക്കുവാൻ ഇത്തരത്തിൽ മികവുപുലർത്തുന്ന സ്ഥാപനങ്ങളെ തേടി കുട്ടികൾ സ്വമേധയാ പുറത്തേക്ക് പോകുന്നു ഈ അടുത്ത കാലയളവിൽ വിദേശ യൂണിവേഴ്സിറ്റികളിലേക്ക് ധാരാളമായി വിദ്യാർത്ഥികൾ പോകുന്നു പഠനത്തിനൊപ്പം ജോലി എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുടിയേറ്റത്തിന് വിദ്യാർത്ഥികൾ തയാറാകുന്നത് ആകർഷകമായ ശമ്പളവും ഉയർന്ന പഠന നേട്ടവും വാഗ്ദാനം ചെയ്തുകൊണ്ട് യൂണിവേഴ്സിറ്റികൾ തന്നെ കുട്ടികളെ വിളിക്കുന്നു അതിനോടൊപ്പം രക്ഷിതാക്കളും താല്പര്യപുരം കുട്ടികളെ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് അയക്കുന്നുവെന്നതാണ് ഇതിൻ്റെ മേന്മയായിട്ട് കാണുന്നത്